ഹലോ ക്യാബ് ബുക്കിംഗ് ഏജൻസി അല്ലേ എനിക്ക് ആലപ്പുഴ ബീച്ചിലേക്ക് വൈകീട്ട് അഞ്ച് മണിക്ക് പോകുന്നതിനായിട്ട് ഒരു കാർ വേണമായിരുന്നു ഞങ്ങൾ കുട്ടികളടക്കം ആറ് പേരുണ്ട് ഓക്കേ ആറ് പേർക്കിരിക്കാവുന്ന കാറിന് എത്ര രൂപയാണ് റേറ്റ് ഓക്കേ മൂവായിരമല്ലേ ഒരു കാര്യമറിഞ്ഞാൽ കൊള്ളാമെന്നും കൂടിയുണ്ട് നാലു പേർക്കിരിക്കാവുന്ന കാറിൻ്റെ റേറ്റും കൂടി ഒന്ന് പറയാമോ ഓക്കേ രണ്ടായിരത്തഞ്ഞൂറല്ലേ ആ എനിക്ക് ആറ് പേർക്കിരിക്കാവുന്ന കാറ് മതിയാകും അപ്പോൾ വൈകീട്ട് അഞ്ച് മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തുമല്ലോ ആ ഡ്രൈവറുടെ നമ്പർ കൂടി ഒന്ന് തരാമോ

ഞാൻ ലൊക്കേഷൻ അദ്ദേഹത്തിന് വാട്സാപ്പ് ചെയ്തുകൊള്ളാം ഓക്കേ താങ്ക് യു